റെഡിമെയ്ഡ് വസ്ത്രങ്ങളെക്കാളും നമ്മൾ തുന്നിയെടുക്കുന്ന വസ്ത്രം തന്നെയാണ് നല്ലതെന്നെ ഞാൻ പറയൂ കാരണം നമ്മൾ ഈ റെഡിമെയ്ഡ് വസ്ത്രമാകുമ്പോൾ നമ്മൾ വാങ്ങിവാങ്ങി വീട്ടിൽ കൊണ്ടു വരുമ്പോഴ്ത്തേക്കും അതു ചിലപ്പോൾ അതിൻ്റെ ഷോൾഡറ് നേരെ അല്ലായിരിക്കും ഓരോ അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഡാമേജ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇത് കാണും ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് തുന്നിയെടുക്കുന്ന നെയ്ത്ത് തുണികളാണെങ്കിൽ അതിന്റേതായ രീതിയിൽ അതിൻ്റെ വൃത്തിക്കും വെടിപ്പിനും മാത്രമായിരിക്കും അത് നിർമ്മിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളൊരു പാവാട തുന്നിയാൽ തന്നെ ഇത് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് പാവാട കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഈ പ്ലീറ്റും ഇതൊന്നും കറക്റ്റ് ആയിട്ട് കറക്റ്റ് ലെവലിന് വരുകയും പ്ലീറ്റുകൾ ചിലപ്പോൾ കുറവോ അങ്ങനെയൊക്കെ സംഭവിക്കാം ഒരേ ഷേയ്പ്പ് ആയിരിക്കില്ല ഇനിയിപ്പോൾ നമ്മൾ അത് തുന്നി എടുക്കുന്നതാണെങ്കിൽ നമ്മൾ അതെ ഷേയ്പ്പിലും അതെ അതെ സൈസിലും മാത്രമാണ് നമ്മൾ അത് ഞൊറിഞ്ഞ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളെക്കാളും നല്ല നല്ലതെന്ന് പറയുന്നത് തുന്നിയെടുക്കുന്ന നെയ്ത്ത് തുണികൾ തന്നെയാണ് നെയ്ത് തുണികളെന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണാനും ഒരു ഭംഗിയും വൃത്തിയും വെടിപ്പും റെഡിമെയ്ഡിനെക്കാളും കാണും റെഡിമെയ്ഡ് എന്ന് പറയുമ്പോൾ അത് ക കഴുത്ത് ആയിരുന്നാലും ക കഴുത്ത് കയ്യായിരുന്നാലും ഒക്കെ അത് അതിന്റേതായ രീതിയിൽ ആയിരിക്കും അവർ തുന്നിയെടുക്കുന്ന തയ്ച്ചെടുക്കുന്നത് എന്നാൽ നമ്മൾ ഈ തുന്നി എടുക്കുന്ന തുണികൾ എന്തുകൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിരിക്കും എന്നേ ഞാൻ പറയുകയുള്ളൂ തുന്നിയെടുക്കുന്ന തുണി അപേക്ഷിച്ച് റെഡിമെയ്ഡ് എന്ന് പറയുമ്പഴ്ത്തേക്കും നമുക്ക് വില കൂടുതലായിരിക്കും പക്ഷേ ക്വാളിറ്റിയുള്ള തുണികളും ആയിരിക്കില്ല പക്ഷേ നമ്മൾ നെയ്തെടുക്കുന്ന തുണികൾ അതിന്റേതായ നല്ല ഷേയ്പ്പും നല്ല വൃത്തിയും വെടിപ്പും ആയിരിക്കും